തിരുന്നാളുകളിൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നു അതായത് തിരുനാൾ സാധനങ്ങൾ നേർച്ച സാധനങ്ങളായ കുർബാന പുസ്തകങ്ങൾ ബൈബിൾ മധ്യസ്ഥ പ്രാർഥനാ പുസ്തകങ്ങൾ പിന്നെ അതുപോലെത്തന്നെ കൊന്ത കുരിശ് രൂപങ്ങൾ ആൾരൂപങ്ങൾ പിന്നെ വിശുദ്ധന്മാരുടെ വിശുദ്ധ ഗ്രന്ഥ വിശുദ്ധന്മാരുടെ പ്രബോധനങ്ങൾ അതുപോലെത്തന്നെ ജീവചരിത്രങ്ങൾ ഇങ്ങനെ പല സാധനങ്ങൾ കച്ചവടം നടത്താറുണ്ട് അത് ഞങ്ങൾ വാങ്ങിക്കുകയും അത് ബൈബിള് വാങ്ങിച്ച് ദിവസവും വായിക്കാനും പിള്ളേരെ പഠിപ്പിക്കുകയും അവരെ ആ ബൈബിള് വായിച്ച് അവർക്ക് ബൈബിൾ ക്വിസ്സിനും ബൈബിൾ പാരായണത്തിനും മറ്റും ചേരുന്നതിനുവേണ്ടി ദിവസവും അവർക്ക് പ്രചോദനം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെത്തന്നെ വിശുദ്ധഗ്രന്ഥ വായന നമുക്ക് ഏറ്റവും പ്രയോജനപരമായ ഒരു ഗ്രന്ഥമാണ് അത് വായിക്കുന്നത് വഴി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് തരുകയും ആ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതു വഴി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ ബൈബിൾ താളുകളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നിയോഗമായിട്ട് നമുക്ക് നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർഥിക്കുന്നതിനും അത് നമുക്ക് നേടിയെടുക്കുന്നതിനും സാധിക്കുന്നുണ്ട് വിശുദ്ധഗ്രന്ഥ വായന ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വായനയാണ് ആ വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്നത് അതുപോലെത്തന്നെ മധ്യസ്ഥ പ്രാർഥനാപുസ്തകം ഓരോ ഓരോ പ്രാവശ്യത്തെയും ഓരോ മധ്യസ്ഥൻ്റെ തിരുനാൾ വരുമ്പോഴും ആ മധ്യസ്ഥ പ്രാർഥന പുസ്തകം ഞങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് മധ്യസ്ഥ പ്രാർഥന നടത്തുകയും മധ്യസ്ഥ പ്രാർഥനയെ സംബന്ധിക്കുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക്